യോഗ ശീലമാക്കിയതു വഴി എനിക്ക് ആസ്വദിക്കാനായത് വർദ്ധിച്ചുവരുന്ന എൻ്റെ അമിതമായ പേടി കുറക്കുവാനായി എനിക്ക് സാധിച്ചു അതുപോലെത്തന്നെ അനാവിശ്യമായി ദേഷ്യപ്പെടുന്ന എൻ്റെ സ്വഭാവം എനിക്ക് കുറക്കുവാനായിട്ട് സാധിച്ചു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധകേന്ദ്രീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അതുപോലെത്തന്നെ വീടുകളിൽ പോയിരുന്ന് ചെയ്യുവാനുള്ള വർക്കുകൾ മറന്നു പോകാതെ കൃത്യമായി ചെയ്ത് പണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മേന്മയോടെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു അത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഗുണമായി കാണുന്നു കാരണം യോഗ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചത് അതുപോലെത്തന്നെ യോഗ ചെയ്യുവാനായി തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ പ്രകൃതിയെ കുറച്ചൂകൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു

പക്ഷെ അതിന് ശേഷം ഇപ്പം കാരണം ഞാൻ യോഗ ഇരിക്കുന്ന സമയം ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്വാസം എടുക്കുന്നതിലാണ് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന സമത്തെന്നു വച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി അതായത് നല്ല ശുദ്ധമായൊരു വായു ശ്വസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇങ്ങനെയൊര് കാര്യം വന്നതിന് ശേഷം ഞാൻ പ്ലാസ്റ്റിക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിൽനിന്നും വരുന്ന വിഷവായു ഞാൻ തന്നെ ശ്വസിച്ച് അത്രമേൽ എനിക്ക് പ്രശ്നങ്ങൾ വരുമെന്ന് ഞാൻ മനസ്സിലാക്കി സൊ അതിന്ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് വച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ട് എനിക്ക് കുറച്ച് മുൻകരുതലുകൾ എടുക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു ഇപ്പോൾ മറ്റുള്ളവരോട് ഇത് സംസാരിക്കുമ്പോഴായാലും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ യോഗയും ആരോഗ്യവും മനസ്സും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറച്ചുകൂടി മനസ്സിലാക്കി എൻ്റെ ആരോഗ്യത്തിന് കുറച്ചുംകൂടി മീൻസ് കുറേക്കൂടി ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഞാൻ എന്നെത്തന്നെ സ്നേഹിച്ചു തുടങ്ങിയത് യോഗ ചെയ്തതിലൂടെയാണ്